ഉണ്ട് ബോളിവുഡും ടോളിവുഡും ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലെയും ഫാഷൻ ട്രെന്റുകളെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ കാരണം ഇന്ന് ആൾക്കാര് നമ്മുടെ കേരളത്തില് ആയിരുന്നാലും ആൾക്കാര് സാരി മാത്രമല്ലല്ലോ ഉടുക്കുന്നത് പണ്ടത്തെ രീതിയിലുള്ള ഡ്രസ്സേ മാറി ഇന്ന് ഓരോ സ്ഥലത്ത് ഓരോ പാർട്ടിക്ക് ഓരോ തരം വസ്ത്രങ്ങളണിയുന്ന രീതിയായി മാറി പിന്ന അതിനെ ബോളിവുഡെന്നോ ടോളിവുഡെന്നോ അങ്ങനെ ഒന്നും ഇല്ല അവർക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങളവിടെ തെരഞ്ഞെടുക്കുന്നു ഉപയോഗിക്കുന്നു പിന്ന ഞാൻ വസ്ത്രധാരണ രീതിയിലേറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയെന്ന് പറയണത് മണിച്ചിത്രത്താഴാണ് അതില് ശോഭനയുടെ സാരിയിലും ചുരിദാറിലും പാവാടേം ബ്ലൗസിലൊക്കെ വരുന്ന അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് പിന്നെ വേറെയും ഉണ്ട് പക്ഷേ ഇപ്പോള് എനിക്ക് പലതുമെനിക്ക് ഓർമ്മവരുന്നില്ല എന്നാലും പല സിനിമകളിലും വസ്ത്രങ്ങള് കാണുമ്പോള് നമുക്ക് വളരെയധികം ഇഷ്ടം തോന്നും കാരണം ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ ചിലതിനൊക്കെ പിന്ന സിനിമയിലെ വസ്ത്രത്തിന് സമാനമായ വസ്ത്രങ്ങള് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം വിജയിച്ചിട്ടില്ല ചിലത് വലിയ കുഴപ്പമില്ലാതെ വിജയിച്ചിട്ടുണ്ട് ചിലത് പാളിപ്പോയിട്ടുണ്ട്